മൽസ്യബന്ധനം എങ്ങനെയാണ് പഠിച്ചത് എന്നു ചോദിച്ചാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ മുതിർന്നവരൊക്കെ ഇങ്ങനെ ചൂണ്ടയിടാനൊക്കെ പോയി അവരുടെ കൂടെ നമ്മൾ ചൂണ്ടായിടാൻ പോകുമായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ചൂണ്ടയിടലിനും ഓരോരോ മൽസ്യങ്ങളാണ് അതിലിപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ പരലോ മൽസ്യ മീനായിരിക്കും അല്ലെങ്കിൽ കാര്യമായിരിക്കും അല്ലെങ്കിൽ വരാലായിരിക്കും ഓരോരോ ഐറ്റങ്ങളായിട്ടുള്ള ചില പല പല മീനുകളാണ് അപ്പോൾ ഇത് നമുക്ക് ഇത് കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇത് ഇങ്ങനെ തന്നെ നമുക്കും പോയി പിടിക്കാം നമുക്കും ഇങ്ങനെ ഒക്കെ ചെയ്താൽ ചെയ്താൽ ഒരു രസമുള്ളു നമ്മൾ ഈ വ മഴയൊക്കെ പിടിക്കുന്ന സമയത്തൊക്കെയാണ് കൂടുതലും ഞങ്ങൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പോവുന്നത് വല പിന്നെയും വല വീശുന്നവരോട് ഈ വല ഒടക്ക് വലയെന്നു പറയുന്ന ഇതുണ്ട് വലയുണ്ട് അത് നമ്മൾ ഒരു നാലഞ്ചുമണിക്കൂർ ഒക്കെ ഇങ്ങനെ അത് വെള്ളത്തിൽ ഇങ്ങനെ ഇടണം അതായത് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ ഒക്കെയാണ് അപ്പോൾ അതിങ്ങനെ ചെറിയ വള്ളങ്ങളിലൊക്കെ പോയി ചിലപ്പോൾ ഈ കണ്ടം ഒക്കെ കണ്ടത്തിലൊക്കെ വെള്ളം നല്ലതുപോലെയൊക്കെ പൊങ്ങി കഴിയുമ്പോൾ കണ്ടത്തിലിടുന്നവരുണ്ട് പിന്നെ തോട്ടറമ്പിലോട്ടൊക്കെ താമസിക്കുന്നവരൊക്കെയാണെങ്കിൽ അങ്ങനെയും ഇടുന്നവരൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെ ഇടുമ്പോഴത്തേക്കും പല പല സൈസുകളിലെ മൽസ്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് കാണാനും രസമുണ്ട് ഇങ്ങനെ വല കുടഞ്ഞ് ഇങ്ങനെയൊക്കെ എടുക്കുന്നവരും ഒക്കെ നമുക്ക് കാണുമ്പോൾ ഒരു രസമുണ്ട് പിന്നെ കൊച്ചു കുട്ടികൾ ആയിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റ് അല്ലെ ഇങ്ങനെയൊക്കെ ഈ പോകുന്നതും ഇങ്ങന കാണുന്നതും ഇങ്ങനെ ഇപ്പോൾ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്കും നമ്മൾ നിർബന്ധിക്കും ഞങ്ങളും വരുന്നു ഞങ്ങൾക്ക്ക്കൂടി പിടിക്കണം ചൂണ്ട ഉണ്ടാക്കിത്തരൂ അങ്ങനെ ഒക്കെ പറഞ്ഞ് നമ്മളും അവരുടെ പിറകെ നമ്മളും പോകാറുണ്ട് പിന്നേ വലയിടുമ്പോൾ ആണല്ലോ കൂടുതലും മൽസ്യങ്ങൾ കിട്ടുന്നത് അപ്പോൾ അത് നമ്മുടെ നമുക്കുണ്ടാവുന്ന ദൈനംദിന ആവശ്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നേയും അത് അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അത് മൽസ്യങ്ങൾ ഇങ്ങനെ പോയി പിടിച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത് അതിൽ നിന്നു കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരുമുണ്ട് പിന്നേയും ചിലവരൊക്കെ എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്നതുപോലെ കാണാൻ ഒരു രസമല്ലേ ചൂണ്ടയിട്ടാൽ മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അങ്ങനെ ചൂണ്ടയുമായിട്ട് ഇങ്ങനെ തോടിന്റെ പറമ്പിലേക്ക് പോവുക അല്ലെങ്കിൽ ആ ഇങ്ങനെ കായലിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാണാനൊരു രസം പിന്നെ ഒരു നേരമ്പോക്കും ആണ് മീൻ കിട്ടിയാൽ അത് വീട്ടിൽ കൊണ്ടുവരാം ആ മറ്റുള്ളവരെ നമുക്കൊരു മീൻ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ആ എനിക്കിങ്ങനെ മീൻ കിട്ടി ഈ എനിക്ക് ഇന്ന മീൻ ആണെടാ കിട്ടിയത് നിനക്ക് എന്താ കിട്ടിയത് ഇങ്ങനെയൊക്കെയുള്ള അങ്ങോട്ടുമുള്ള ചോദ്യങ്ങൾ ഒക്കെ വരും പിന്നെ നമ്മൾ ഇതിന് തീറ്റയൊക്കെ കൊടുക്കുന്നത് മീൻ പിടിക്കുന്ന ചൂണ്ടയിലിങ്ങനെ ഈ ചിലപ്പോൾ മാവ് ഈ ആട്ടപ്പൊടി ഇങ്ങനെ ഉരുട്ടി അങ്ങനെയൊക്കെയുള്ള ചൂണ്ടയിടുന്നവരുണ്ട് പിന്നെ നാടൻ വിരകൾ ഇട്ട് മീൻ പിടിക്കുന്നവരുണ്ട് പിന്നെ ഈ വീശി ഇങ്ങനെ കയ്യുടെ പുറത്തൊക്കെ ഇങ്ങനെയിട്ട് ഇങ്ങനെ വള്ളത്തിലൊക്കെപ്പോയി വല എറിഞ്ഞ് മീൻ പിടിക്കുന്ന മീനെ പിടിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒത്തിരിയേറെ മൽസ്യബന്ധനങ്ങളൊക്കെയുണ്ട് അങ്ങനെയൊക്കെയുള്ള കാണുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു രസമുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് അതൊരു വരുമാന മാർഗ്ഗമുള്ളതായിട്ട് ജീവിക്കുന്നവരും ഉണ്ട്